പന്ത്രണ്ട് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട്

പതിനേഴ് നാല് രണ്ടായിരത്തി പതിനേഴ് പത്ത് അഞ്ച് രണ്ടായിരത്തി പതിനെട്ട് പതിമൂന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അഞ്ച് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന്